ആ ഒരു വലിയ കൂട്ടം ആൾക്കാർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് പിന്നെ അതായത് ഹസ്ബെൻ്റിൻ്റെ ഫ്രണ്ട്സ് അതായത് ഒരു പത്ത് പേരൊരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഞാന് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാനും ഹസ്ബെൻറ്റും മാത്രമേയുള്ളൂ എനിക്ക് ഞങ്ങൾക്ക് രണ്ട് പേർക്കും വെച്ചിട്ടുള്ളൊരു പരിചയമേയുണ്ടായിരുന്നുള്ളൂ അപ്പം അവര് കുറേപ്പേരായിട്ട് വരുമ്പോള് എനിക്ക് അതായത് ഒരു ടെൻഷനുണ്ടായിരുന്നു അപ്പോള് എന്നോട് ഹസ്ബെൻ്റ് പറഞ്ഞു നീ ടെൻഷനൊന്നും അടിക്കേണ്ട അതൊക്കെ അങ്ങനെയൊക്കെ വെച്ചുപഠിക്കണം നമുക്ക് രണ്ട് പേർക്ക് മാത്രം വെച്ച് പഠിച്ചിട്ട് കാര്യമില്ല അതുമാത്രം പോരല്ലോ നീ വെച്ച് പഠിക്ക് ആ കുഴപ്പമൊന്നുമില്ല നീ കുഴപ്പമൊന്നുമുണ്ടാവില്ല നീ ഉണ്ടാക്കിക്കോ അങ്ങനെയാണെങ്കില് നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കിയാല് മതി മറ്റേ സദ്യയൊക്കെയാകുമ്പോള് നിനക്ക് ഭയങ്കരം പാടല്ലേ എന്നു പറഞ്ഞു എന്നോട് അപ്പം ഞാന് പറഞ്ഞു ആ എന്നാല് ഓക്കെ ഞാന് എന്നാല് ആരുടെയടുത്തെങ്കിലും കൊടുത്തുവിടാം ഫുഡ് അതായത് നെയ്ച്ചോറിൻ്റെ അരിയും ചിക്കനുമൊക്കെ മേടിച്ച് ചിക്കൻ പൊടിയെല്ലാം മേടിച്ചുകൊണ്ട് ഞാന് നിങ്ങള് വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കിവെയ്ക്കാമെന്ന് പറഞ്ഞു അപ്പം അതായിരുന്നു ഒരവസരം അപ്പം എന്തായാലും പാളിപ്പോയില്ല അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഹസ്ബെൻ്റിന് ഭയങ്കരം ഇഷ്ടപ്പെട്ടു ഞാൻ ഉണ്ടാക്കിയത്